സാർ എവിടെയാണ് നമുക്ക് ഒന്ന് മൂന്നാർ വരെ പോകണമായിരുന്നു ആ എപ്പോൾ ഫ്രീ നാളെ ഫ്രീയുണ്ടോ

ആ നാളെ ആ നാളെ ഒരു അഞ്ച് മണി ആവുമ്പോൾ പുറപ്പെടാം ഒരു അഞ്ച് പേരുണ്ട് എത്ര ആകും ടു ഡേയ്സിക്ക് ആ

കിലോ കി കിലോമീറ്റർ അനുസരിച്ചല്ലേ കിലോ

ആ പ്രശ്നം ഇല്ല പ്രശ്നം ഇല്ല നമ്മൾക്ക് സൗകര്യം പോലെ ചെയ്താൽ മതി നാളെ അപ്പോൾ പണത്തിന് പണത്തിന് പ്രശ്നം ഇല്ല സെറ്റ് ചെയ്താൽ മതി നാളെ രാവിലെ എത്തിയേര് അപ്പോൾ

അഞ്ച് മണി അഞ്ച് മണിക്ക് അപ്പോൾ ആ അത് നിങ്ങൾ ഡ്രസ്സ് കാര്യങ്ങൾ എടുത്തോളി ആ മൂന്ന് ദിവസത്ത പരിപാടി അല്ലേ ഓക്കെ

അത് മൊത്തം തരാം നിങ്ങൾ അപ്പോൾ പ്രശ്നമില്ല പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി ഓക്കെ പിന്നെ അപ്പം നാളെ ഒരു അഞ്ച് മണിക്ക് എത്തൂലേ ആ ഓക്കെ ഓക്കെ ആ നാളെ രാവിലെ കാണാം അപ്പോൾ ഒരു അഞ്ച് അഞ്ച് പേരുണ്ടാവും ആ അഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റും അല്ലേ

ഓക്കെ ഓക്കെ അപ്പം നാളെ രാവിലെ എത്തിയാൽ

പ്രശ്നം ഇല്ല പ്രശ്നം ഇല്ല ശരിയാക്കാം ഓകെ ഓക്കെ അപ്പോൾ നാളെ കാണാം ഓകെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു